ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു പ്രാദേശിക ഭാഷയെന്ന് പറഞ്ഞാൽ അത് മലയാളം തന്നെയാണ് മലയാളത്തെക്കാളും വലിയൊരു പ്രാദേശിക ഭാഷയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയും ഇല്ല ഇപ്പോൾ കേരളത്തിൽ പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും മലയാള ഭാഷയാണ് പക്ഷെ പല സ്ഥലങ്ങളിലും പല ഭാഷകളാണ് സംസാരിക്കുന്നത് കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വേറൊരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള അതേ സ്ലാങ്ങായിരിക്കില അങ്ങ് കാസർഗോഡ് കാസർഗോഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു കർണാടക ഭാഷ ടച്ചുള്ളൊരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ പല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ മലയാള ഭാഷയിൽ തന്നെ ഉണ്ട് അപ്പോൾ പുറമെ നിന്നുള്ളൊരു ഭാഷയും കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ല അപ്പോൾ കുറേ ആൾക്കാർ വന്ന് കയറിയിട്ടുള്ള ഭാഷയും കാര്യങ്ങളും അപ്പോൾ ഹിന്ദിയും കാര്യങ്ങളൊക്കെ വന്ന് കയറിയിട്ടുള്ള ഒരു ഭാഷയും കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ടുള്ള ഭാഷയും കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊന്നും നമ്മുടെ കേരളത്തിൽ എവിടെയും ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം